വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് ഒരു സമൂഹത്തിത്തിൻ്റെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു ഘടകമാണ് വിദ്യാഭ്യാസം എന്നത് ഈ ഒരു കാലത്തേക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ല അതൊക്കെ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം ജീവിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് എൻ്റെ ഭാഗത്ത് പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ളത് ഓരോരുത്തർക്കും വിദ്യാഭ്യാസത്തിൻ്റെ വില അറിഞ്ഞിട്ടുണ്ട് മിനിമം എങ്ങനെ അത് എന്ന് വെച്ചാൽ പ്രീപ്രൈമറി സ്കൂളുകളിൽ വരെ കൊണ്ട് വിടുന്ന രക്ഷിതാക്കളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രത്തോളം രക്ഷിതാക്കൾ ആ ഒരു അവെയറായിട്ടുണ്ട് ഏ ബോധവൽക്കരണപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ ഈയൊരു കാലത്ത് ഓരോ കുട്ടി പ്രത്യേകിച്ച് ഓരോ ഭാഷ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെയുണ്ട് ഭാഷകളിൽ ഒരുപാട് നൈപുണ്യം നേർന്ന് അതിന് മുന്നോട്ട് പോവാൻ താൽപ്പര്യപ്പെടുന്ന ഒരുപാട് വിദ്യാർഥികൾ പിന്നെ നമ്മുടെ സ്ത്രീ വിമൻ എമ്പവർമെൻറ് അത് ഇവർക്കുള്ള ഡ്രസ്സി നോക്കുവാണെങ്കിൽ പോലും അവർ ഒരുപാട് മുന്നോട്ട് ചലിച്ചിട്ടുണ്ട് ഏ പെട്ടെന്ന് കല്യാണം കഴിച്ച് പോകുന്നതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ കൂടുതലും ഇന്ന് വിദ്യാഭ്യാസം മേഖലയിൽ ഉന്നതിയിൽ പ്രാപിക്കാൻ വേണ്ടി പലരും പിന്നെ പ്രയത്നിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് മാതാപിതാക്കളിൽനിന്നുള്ള സപ്പോർട്ടാണ് ഓരോ വ്യക്തിയെയും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ത്രസിപ്പിക്കുന്നതും താല്പര്യപ്പെടുത്തുന്നതും ഏ നമ്മുടെ കൂട്ടത്തില് നമ്മളെ നമ്മളെ ഒന്ന് എൻക്റേജ് ചെയ്യാൻ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു അവസ്ഥയില്ല അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുകൊണ്ടുള്ള ഒരു സമൂഹമാണ് എൻ്റെ പ്രദേശത്ത് ഉള്ളത് എൻ്റെ പ്രദേശം മാത്രമല്ല ചുറ്റുഭാഗം ഈ ലോകത്ത് ഏകദേശം അങ്ങനെത്തൊരു സമൂഹമാണ് മ് ഒരുപാട് സാക്ഷര കേരളം അല്ലെങ്കിൽ സാക്ഷര ഇന്ത്യ എന്ന് ഒക്കെ നമ്മൾ സ്വപ്നം കാണാം ഏ കേരളം നമ്മൾ തന്നെ കേരള മലയാളികളാണ് കേരളത്തിൽ ജീവിക്കുന്നവരാണ് കേരളത്തിലൊക്കെ അധികവും എന്താണ് വിദ്യാഭ്യാസത്തിനും കൂടുതൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ഏ വിദ്യാഭ്യാസം നുകരാൻ ഏ വിദ്യ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി കഴിയുന്ന പരമാവതി എത്ര ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്ന ഒരു മേഖലയാണ് ഏ വിദ്യാഭ്യാസം എന്ന് ഉള്ളത് മ് അത് അത്രത്തോളം പൈസ എന്ത് ഞാൻ സാമ്പത്തികം നമൾ നോക്കുകയാണെങ്കിലും പൈസ വാരാനും അത് പൈസ സംഭരിക്കാനും അതുപോലെ പൈസ ചെലവഴിക്കാനും പറ്റിയ ഏറ്റവും നല്ലൊരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖലാ എന്നുള്ളത് എഡ്യൂക്കേഷൻ സ്ട്രീം എന്നുള്ളത് ഏ അതിലൂടെ ഒരുപാട് കോടികൾ സമ്പാദിക്കുന്ന പല വ്യക്തിത്വങ്ങളും ഉണ്ട് അതിൽ നിന്ന് പലരും നേട്ടങ്ങൾ സംഭരിച്ച് പല ആളുകളുള്ളപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞൊരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏ വിദ്യാഭ്യാസം ഒരു ഒരു മിനിമം എല്ലാ ആളുകൾക്കു എന്താ ഇംഗ്ലീഷ് ഭാഷയെങ്കിലും അറിയുന്നുണ്ടാവും മ് മലയാളം ഭാഷക്ക് പറയുമ്പം എല്ലാവർക്കും എന്താണ് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും എന്താണ് അലെങ്കിൽ കേരളം എന്നല്ല ഏകദേശം എല്ലാ ഏരിയകളും ഉള്ള എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷ എന്തായാലും അറിയുന്നുണ്ടാവും

അപ്പോൾ വിദ്യാഭ്യാസ മേഖല എന്ന് ഉള്ളത് അത്രത്തോളം ദിവസേന അല്ലെങ്കിൽ മണിക്കൂറിന് മിനിറ്റിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും വന്നിട്ടുണ്ട് എല്ലാവർക്കും തന്നെ നമ്മൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഇല്ലാത്ത മാതാക്കൾക്കാർക്ക് പോലും അത് വിദ്യാഭ്യാസത്തിൻ്റെ വില എപ്പം മനസ്സിലാവുന്നുണ്ട് അവർ ജോലിയിൽ ഏർപ്പെടു ജോലിയില്ലാത്ത തൊഴിൽരഹിത അവസ്ഥ അവർക്ക് മനസ്സിലാവുന്നുണ്ട്